ആ കേൾക്കാം കേൾക്കാം കേൾക്കാം പറഞ്ഞോ എങ്ങനെയാ തെന്നി വീഴുവായിരുന്നോ എങ്ങനെയാ വീണത് ആണല്ലേ നടുചെന്ന് കുളത്തിനുള്ളിൽ വല്ലതും ഇടിച്ചായിരുന്നോ എങ്ങനാ ടയറേലോ വല്ലതും ബക്കറ്റേലോ അ അ അ അ അ അ അ അപ്പോൾ പിന്നെ ബാമോ വല്ലതോ ഇട്ട് തിരുമ്മിയായിരുന്നോ ആ ആ ആ അ മ്മ് മ്മ് വേറെ വല്ലയിടവും കാണിച്ചിനോ ഡോക്ടർമാരെ കാണിച്ചിനോ വേറെ വല്ലയിടത്തും ആണല്ലേ എന്നിട്ടും കുറയുന്നില്ലല്ലേ വല്ല പെയിൻ കില്ലറ് വല്ലതും കഴിച്ചോ ഇല്ല അല്ലേ ഓക്കെ ഓക്കെ അപ്പം ഞാൻ ഇപ്പോൾ ഒരു മരുന്ന് പറഞ്ഞുതരാം പിന്നെ ഒരു ബാം ഉണ്ട് ആ ബാം കൂടെ പറഞ്ഞുതരാം ഞാൻ വാട്ട്സാപില് അതിൻ്റെ പേരിട്ടേക്കാം ഇത് വാട്ട്സപ് നമ്പർ അല്ലേ ഇട്ടേക്കാവേ എവിടുന്നാ വിളിക്കുന്നത് ആ പേര് ആ ഓക്കെ അപ്പം ഞാൻ ബാമിൻ്റെ പേരും ഈ ടാബ്ലറ്റിൻ്റെ പേരും എല്ലാംകൂടെ കുറിച്ചേക്കാം അപ്പം അത് പുറത്തുനിന്ന് മേടിച്ച് ഒന്ന് ഉപയോഗിച്ച് നോക്ക് എങ്ങനെയുണ്ട് കുറയുന്നോ എന്ന് നോക്ക് ഇല്ലെങ്കിൽ എന്നാൽ ഇല്ലെങ്കിൽ കുറയുന്നില്ലെങ്കിൽ നമുക്ക് എൻ്റെ ക്ലിനിക്കിലോട്ട് വാ മാമോസിലാണ് എൻ്റെ ക്ലിനിക്ക് നമുക്കൊരു എക്സ്റേ ഒക്കെ എടുത്ത് നമുക്ക് നോക്കാം എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം തൽക്കാലം ഇതൊന്ന് ഒരു ഒന്ന് രണ്ടാഴ്ച്ച ഒന്ന് ഉപയോഗിച്ച് നോക്ക് ആ ചൂട് വെള്ളത്തിൽ ഉപ്പിട്ട് കുളിച്ചോ ഇച്ചിരി പുളിയിലയോ അന്തെ ഇലയൊക്കെ ഇട്ട് പൊടി പൊടിയുടെ ഇലയൊക്കെയുണ്ട് അതൊക്കെ ഇട്ട് ഒന്ന് ചൂട് പിടിച്ച് നന്നായിട്ടൊന്ന് നോക്ക് എന്നിട്ട് ഇച്ചിരി റസ്റ്റ് എടുക്ക് വെയ്റ്റ് ഒന്നും എടുക്കല്ലേ ആ റസ്റ്റ് ഒക്കെ എടുത്ത് നോക്ക് അപ്പോഴത്തേന് നമുക്ക് കുറയും എന്ന് ആ തുണിയൊന്നും അലക്കല്ല വെയ്റ്റ് എടുക്കല്ല ആ വെയ്റ്റ് ഒന്നും എടുക്കല്ല അപ്പോൾ ഒരാഴ്ച്ച റസ്റ്റ് എടുക്കുന്നത് ആയിരിക്കും നല്ലത് ഇത് കുറയുന്നില്ലെങ്കിൽ എൻ്റെ ക്ലിനിക്ക് അവിടത്തന്നെക്ക് വാ അപ്പം നമുക്ക് അവിടെ വെച്ച് നമുക്ക് എക്സ്രേ ഒക്കെ എടുത്ത് നോക്കാം വല്ല കുഴപ്പവും ഉണ്ടോ എന്ന് നോക്കാം ആ നമുക്ക് നോക്കാം ഈ മരുന്ന് കൊണ്ട് കുറയുന്നില്ലെങ്കിൽ നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ താങ്ക് യൂ എൻ്റെ എൻ്റെ ക്ലിനിക്ക് മാമൂട് ആ അവിടയോട്ട് എത്തിയാൽ മതിയേ പിന്നെ വിളിച്ചിട്ടെ വരാവുള്ളു ഈ നമ്പറിലൊന്ന് വിളിക്കണം ഞാൻ അവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ടോ എന്നത് അറിയില്ല ഒന്ന് വിളിച്ചേക്കണം വിളിച്ചിട്ട് വന്നാൽ മതിയേ ഓക്കെ മ്മ് ആ